സ്വന്തമായിട്ട് തയ്ച്ചിടാനാണ് ആദ്യം ഞാന് തുടങ്ങിയത് നൂലും മുത്തുകളും സൂചിയൊക്കെ ഉപയോഗിച്ച് തയ്യൽ മെഷീൻ വഴിയാണ് ആദ്യമായിട്ട് ഞാന് എൻ്റെ സ്വന്തം വസ്ത്രങ്ങള് തന്നെ തയ്ച്ചിടാന് തുടങ്ങിയത് പിന്നീടത് പിന്നീടത് ഞാൻ നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ട് മാറ്റിയെടുത്തു ബ്ലൗസ് ബ്ലൗസും ചുരിദാർ മെറ്റീരിയൽസ് നൈറ്റി അങ്ങനെ ഓരോന്നും തയ്ച്ച് എനിക്കൊരു വരുമാനം കണ്ടെത്താനായിട്ട് തുടങ്ങി എംബ്രോയ്ഡെറി വർക്കുകളും ആരിയ വർക്കുകളുമൊക്കെ ചെയ്ത് അതിൽ കൂടുതല് ഫാഷനബിളാക്കി അതായത് നെയ്ത് കൂടുതല് ഫാഷനബിളാക്കി മാറ്റി അതിലൂടെ ഒരു സേവിങ്സും ഒക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങി